അതെ അതെ തനിക്ക് ഏത് രീതിയിലുള്ള ബൈക്കാണ് വേണ്ടത് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ഇപ്പം ആയിട്ട് പൾസർ ഉണ്ട് പിന്നെ മറ്റേ സി ടി ഉണ്ട് എണ്ണ ലാഭത്തിനാണെങ്കിൽ സി ടി നോക്കിയാൽ പോകും ആ സ്പ്ലെൻഡർ ഉണ്ട് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് ഏതാണ് വേണ്ടത് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റിൽ സ്പ്ലെൻഡർ ഉണ്ടാകില്ല സ്റ്റാർട്ടിങ് അൻപതാണ് സ്റ്റാർട്ടിങ് അൻപതാണ് സ്പ്ലെൻഡറിന് ലോ ബഡ്ജറ്റിൽ സ്പ്ലെൻഡർ ഉണ്ടാകില്ല ഇവിടെ ഇപ്പോൾ പൾസർ ഉണ്ട് നല്ല മോഡൽ ബ്ലാക്ക് ഒരു പത്ത് മൈലേജ് പത്ത് മൈലേജ് ഒക്കെ ഉണ്ട്

ആർ എക്സ് ഉണ്ട് ആർ എക്സ് ഉണ്ട് ഒരു ഒറ്റ പീസ് ആർ എക്സ് ഉണ്ട്

നമ്മൾ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ആണ്

ആ നാളെ ആ ഓപ്പൺ ആണ് നാളെ വന്നാൽ മതി ഞങ്ങൾ പത്തുമണി പത്തുമണി മുതൽ രാത്രി പത്തുമണി വരെ ഉണ്ടാകും ആ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ നമ്പറിൽ കൊടുത്തേക്കാം ഈ നമ്പറിൽ തന്നെ അല്ലേ ആ ആ